ചിത്രം വരച്ചു തുടങ്ങുന്നവർക്കും തങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം എനിക്ക് കൂടുതൽ അമ്മമാരോടൊക്കെയാണ് ഉപദേശം നൽകാനുള്ളത് കുട്ടികൾ ചെറുപ്പത്തിൽ അതായത് ഒരു മൂന്ന് വയസ് നാലു വയസൊക്കെ ആകുമ്പോൾ വര അങ്ങനത്തെ കാര്യങ്ങൾക്ക് അവർക്കൊരു അതായത് എന്തിനോടാണോ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മള് നമ്മളെക്കൊണ്ട് കഴിയുവാണെങ്കിൽ നമ്മളവരെ അത് പഠിപ്പിക്കാൻ വിടുക കാരണെമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിത്തം മാത്രമല്ലല്ലൊ ഓരോ കുട്ടികൾക്ക് ഓരോ കഴിവുണ്ടാവും ചില കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും ചിലർക്ക് പാട്ട് പാടാനായിരിക്കും ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ കഴിവായിരിക്കും അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിത്രം വരയ്ക്കുന്ന കുട്ടികളാണെങ്കില് അവര് എന്താ പറയുക ചെറുപ്പത്തില് അതിനോടുള്ള ഒരു ഇൻ്ററസ്റ്റ് കാണിക്കുവാണെങ്കിൽ തീർച്ചയായും അവരെ അതായത് പഠിപ്പിക്കാൻ വിടുക അല്ലെ ഇപ്പോൾ പഠിപ്പിക്കാൻ വിട്ട് വിടാനുള്ളൊരു സാമ്പത്തിക ശേഷി ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ വീട്ടിലും ഇപ്പോൾ ടച്ച് ഫോണ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീടുകള് വളരെ കുറവാണ് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് കാര്യങ്ങളിൽ തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അവർക്ക് അതിലൂടെ നമുക്ക് മനസിലാവുന്ന രീതിയില് നമ്മള് പറഞ്ഞു കൊടുക്കുക ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വലുതാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ചിത്ര രചനയിൽ തന്നെ അവർക്കൊരു വരുമാനം അതായത് അവർക്കൊരു പ്രൊഫഷണലായിട്ട് എടുക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്